ഞാനൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപെട്ടതതായത് കൊണ്ട് എനിക്ക് കൂടുതലും നമ്മുടെ പള്ളികളെക്കുറിച്ചും പള്ളിപ്പെരുന്നാളുകളെ കുറിച്ചുമാണ് അറിയാവുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ എടത്വ എടത്വ ഫെറോണ പള്ളി സെൻ ജോർജ് എടത്വ എന്ന് പറയുന്ന സ്ഥലത്താണ് സെൻ്റ് ജോർജ് ഫെറോണ പള്ളി അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പെരുന്നാളാണ് നമ്മുടെ ഏപ്രിൽ മാസം തൊട്ട് ഒരു മാസത്തോളമാണ് അവിടുത്തെ പെരുന്നാള് അതിനാ അവിടെ മെയിൻ ആയിട്ടും തെക്കരുടെയും നമ്മുടെ നാടുകളിലുള്ള അതായത് തമിഴ്നാട് തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് കൂടുതലും അവിടെ ഉണ്ടാവുക പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരുടെയും അങ്ങനെ രണ്ട് രണ്ട് രണ്ട് വിധത്തിലാണ് ഇവിടെ പെരുന്നാൾ നടത്തുന്നത് ഒരു ഒരു മാസം തമിഴ്നാട്ടുകാരുടെയും അത് അതിനകത്ത് ഒരുപാട് ഐതിഹ്യങ്ങളുള്ളത് കൊണ്ട് അവിടുന്ന് അവിടുന്ന് ഐതിഹ്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഐതിഹ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലും അവിടുന്ന് അവിടെ നടത്തുന്നത് അതൊരു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടാറ് സെൻ്റ് ജോസഫ് ചർച്ചെന്ന് പറഞ്ഞിട്ട് അവിടെയുണ്ട് ഇതെല്ലാം അവിടെ അത് വിശുദ്ധ അന്തോന്ന്യാസിൻ്റെയാണ് അന്തോണീസ് പുണ്യാളൻ്റെയാണ് അന്തോണീസ് പുണ്യാളൻ്റെ അഴുവത്ത ഒരു നാവ് നാവിൻ്റെ ഒരു മെയിൻ ആയിട്ടും അങ്ങനെയാണ് അവിടെ അതുകൊണ്ടുതന്നെ ഈ ഒന്ന് രണ്ട് പള്ളികളാണ് ഒന്ന് രണ്ടല്ല പിന്നെ വേറെയും ഒരുപാട് പള്ളികളുണ്ട് നമ്മുടെ കൃപാസനം അവിടെയുള്ള പള്ളികളിൽ ഒക്കെ വിശ്വാസികൾ കൂടുതലും അവിടുത്തെ ഇതിനൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ക്ഷേത്രോത്സവം എന്ന് പറയുന്നത് അമ്പലപ്പുഴ അമ്പലപ്പുഴയിൽ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അമ്പലമുണ്ട് അവിടെ അവിടെയും ഈ ഒരു അവിടുത്തെ അവിടുത്തെ സോറി അവിടുത്തെ ഉത്സവവും ഒരു ഭയങ്കര പ്രശസ്തമായിട്ടുള്ളതാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് നമ്മുടെ ഇവിടെയുള്ള ഒരു വേറൊരു ചെറിയ ഒരു അമ്പലമാണ് അത് ഒരു ഭഗവതി ക്ഷേത്രം ആണ് അവിടെയും ഇങ്ങനെയൊക്കെ തന്നെ ഇതുപോലെ അവിടുത്തെ അമ്പലത്തിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ ഒരുപാട് ആനകൾ ഒക്കെ എഴുന്നള്ളത്തിന് വെക്കുന്ന അങ്ങനെയൊക്കെയാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പള്ളിയിൽ പെരുന്നാളിൻ്റെ കാര്യം നമുക്ക് അറിയത്തുള്ളൂ പള്ളികൾ കൂടുതൽ ഒരുപാട് ഉണ്ട്